ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഘടിതമായി നടത്തിയ ഒരു ബൈക്ക് റൈഡിലും അതുപോലെത്തന്നെ റയ്സിങ്ങിലും പങ്കെടുത്ത ഒരു വ്യക്തിയാണ് സംഘടിത ബൈക്ക് റാലി ആയിരുന്നു ഞാൻ പങ്കെടുത്തത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ കുത്തഴിഞ്ഞ പ്രവർത്തനങ്ങൾക്കെതിരെയായി നമ്മുടെ നാട്ടിലെ സംഘടന നടത്തിയ ഒരു പരിപാടിയിലായിരുന്നു ബൈക്ക് റൈഡ് ഉണ്ടായിരുന്നു അതൊരു പ്രതിക്ഷേധ രീതിയിലുള്ള ബൈക്കിംഗ് ആയിരുന്നു സമൂഹത്തില എല്ലാ ഭാഗങ്ങളിലും എത്തിപ്പെടുക എന്ന ഒരു പ്രചരണ രീതിയായിരുന്നു അന്ന് സ്വീകരിച്ചത് ബൈക്കിൽ പോവുകയും ആളുകളുടെ ശ്രദ്ധ തിരിക്കുകയും ഓരോ കവലയിൽ എത്തി അവർക്ക് വേണ്ട നിർദേശങ്ങൾ നൽകുകയും പ്രതിക്ഷേധം രേഖപ്പെടുത്തുകയുമായിരുന്നു ആ ബൈക്കിങ്ങിലൂടെ ഉദ്ദേശിച്ചത് അതുപോലെത്തന്നെ നമ്മുടെ തൊട്ടടുത്ത് നാട്ടിൽ ബൈക്ക് റേസിംഗ് ഉണ്ടായ സമയത്ത് അതിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു പക്ഷേ എൻ്റെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വാഹനത്തിൻ്റെ അസൗകര്യം കാരണത്തിൽ അല്ലെങ്കിൽ അതിലുള്ള ഫെസിലിറ്റി കുറവായത് കാരണത്താൽ ആ ഒരു റൈസിംഗിൽ എനിക്ക് മുന്നേറാൻ സാധിച്ചില്ല പക്ഷെ പിറ്റേ പ്രാവശ്യം അവിടെത്തന്നെ നടത്തിയ റേസിങ്ങിൽ എനിക്ക് ഫസ്റ്റ് അടിക്കുകയും മുമ്പ് ഫസ്റ്റ് അടിച്ച വ്യക്തി എന്നെ ആ ഒരു സദസ്സിൽ വെച്ച് എൻ്റെ പേര് പറയുകയും എന്നെ ബഹുമാനിക്കുകയും എനിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും എനിക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു ആ ഒരു രീതിയിൽ എനിക്ക് ഇനിയുള്ള ലൈഫിൽ വളരെ വലിയ അനുഭവങ്ങളും വളരെ വലിയ പ്രതീക്ഷകളും നൽകിക്കൊണ്ടാണ് അന്നത്തെ ആ ഒരു പ്രൈസിന് ഞാൻ മുന്നോട്ട് പോയത്